സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ കുറഞ്ഞതൊന്നുമല്ല ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസവും കൂടുതലായി നമ്മളെ ജീവിതങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നു കൃഷി രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളും പിന്നെ വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് മൊബൈൽ ഫോണുകൾ അത് സാങ്കേതിക ഉപകരണങ്ങൾ കൃഷിരംഗത്ത് വന്നൊരു വലിയ കാര്യമാണ് ട്രാക്ടറുകളെന്നു പറയുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഡയറക്റ്റായിട്ട് ഒരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും കൃഷിരംഗവും കൃഷിരംഗത്തു നിന്ന് വന്ന നിത്യ മാറ്റങ്ങളറിഞ്ഞൂട അതിലൂടെ വന്ന കൃഷി രംഗത്ത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ മാറിയതും അല്ലെങ്കിൽ കൃഷി അതിൽ നിന്ന് സംരംഭം ഇച്ചിരികൂടെ എളുപ്പമായിട്ട് കർഷകന് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഒരുക്കിയ ഒരു ഉപകരണമാണ് ട്രാക്ടർ പല കാലഘട്ടങ്ങളിലുള്ള ഘടകങ്ങളിലൂടെ വന്ന് വന്ന് ഇപ്പോൾ ഞാൻ ദിവസം കഴിക്കുന്ന ഭക്ഷണം എൻ്റെ കുടുംബത്തിലെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിന് മിതമായ രീതിയിൽ എളുപ്പമായ രീതിയിൽ കാര്യങ്ങളെത്താൻ വളരെ സഹായിച്ച ഒരു കാര്യമാണ് ട്രാക്ടറുകളെപ്പറ്റി എനിക്ക് അധികമായി പറയാൻ പറ്റിയിരുന്നു പക്ഷേ മൊബൈൽ ഫോണുകളിൽ വന്നിരിക്കുന്ന മാറ്റം അതിലും വലിയൊരു കാര്യമാണ്

പക്ഷേ ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുവരുമ്പോൾ മൊബൈൽ ഫോണുകളിലെ ഉപയോഗവും കാര്യങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ വ്യക്തിപരമായി മൊബൈൽ ഒത്തിരി ഉപയോഗിക്കുന്നൊരാളാണ് ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങൾക്കായി ഞാൻ മൊബൈൽ ഫോൺ കാലഘട്ടങ്ങളിൽ അധികമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഒരു പക്ഷെ അതെനിക്ക് ദോഷകരമായ രീതിയിൽ എന്നെ ബാധിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒഴിച്ചുമാറ്റാൻ പറ്റാത്തൊരു ഉപകരണമായി മാറിയിരിക്കുന്നു എനിക്കെൻ്റെ ഫോൺ ദിവസവും ഫോണിൻ്റെ യൂസ് കൂടിക്കൂടി വരുന്നതിനോട് പ്രശ്നമാണെങ്കിലും പക്ഷെ ഓരോ ദിവസവും എനിക്ക് കണക്ട് ചെയ്യാനും എൻ്റെ പഠനത്തിനാവശ്യമായിട്ട് യൂസ് ചെയ്യാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടും എൻ്റെ വീട്ടിലാൾക്കാരുമായിട്ട് സംസാരിക്കാനും കോൺടാക്ട് ചെയ്യിപ്പിക്കാനും അവരവരുടെ ആവശ്യങ്ങൾ ചെയ്യാനും ഓരോ ദിവസവും അധികമായി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ

ഞങ്ങളുടെ വീട്ടിൽ ടി വി അധികം യൂസ് ചെയ്യാറേ ഇല്ല ഇപ്പോൾ വന്ന് വന്ന് ചിലപ്പോൾ രാത്രിയെല്ലം ചില നേരം ന്യൂസ് കാണാനോ കേൾക്കാനോ യൂസ് ചെയ്യുന്നതല്ലാതെ ടി വി തുറക്കാറില്ല പക്ഷേ അതിലും ഏറ്റധികം യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഉപയോഗിക്കുന്നൊരു കാര്യമാണ് മൊബൈൽ ഫോണ് ഇപ്പോൾ വന്ന് വന്ന് ഞങ്ങൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ വോളെറ്റർ പേസ് എടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല ഒരു സ്കൂളിൽ എല്ലാ ചിലവുകളും കാര്യങ്ങളും ഫോൺ വഴി അല്ലേൽ ജി പേ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വഴി അങ്ങ് പേ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ മൊബൈൽ ഫോണെന്ന ഒരു ഉപകരണം ജീവിതത്തെ ഒന്നുമേ മാറ്റി മറിച്ചിരിക്കുന്നു ഇനി മുന്നോട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അതില്ലാതെ ജീവിതം ഇപ്പം പോകുന്ന ഒരു തരത്തിൽ പോകുമെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല ഓരോ ദിവസം അതിൻ്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും അത് അത് വെച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ദിവസങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു അത് എൻറ്റർടൈൻമെൻറ്റിനാവട്ടെ പഠന കാര്യങ്ങൾക്കാവട്ടെ മറ്റ് കാര്യങ്ങൾക്കാവട്ടെ പക്ഷേ ഒരിക്കലും ഒരു ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് മൊബൈൽ ഫോണ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ